എൻ്റെ കുടുംബത്തെ കുറിച്ച് പറയുവാണെങ്കിൽ എനിക്ക് രണ്ട് മോനുണ്ട് ഒരു ഭർത്താവുണ്ട് പിന്നെ മക്കളൊരാൾ സി എ കഴിഞ്ഞു അവർ മൂത്ത ആളുടെ കല്യാണം കഴിഞ്ഞു ഇപ്പോൾ ഒരു ഒന്നര വർഷമായി രണ്ടാമത്തെ ആൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ഗൾഫിൽ അവരേം കല്യാണം കഴിഞ്ഞു പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു വലിയ ഒരു വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോഹമായിരുന്നു അതവൻ അവിടെ പോയി പണിയെടുത്ത് പൈസയൊക്കെ അയച്ച് ഞങ്ങൾ നല്ലൊരു വീട് കെട്ടി അത് കഴിഞ്ഞിട്ടാണവൻ കല്യാണമൊക്കെ കഴിച്ചത് പിന്നെ ഇതാണ് എന്റെ ഒരു ചെറിയൊരു ഫാമിലി പിന്നെ ഫാമിലി എന്ന് പറഞ്ഞാൽ വലിയ ഫാമിലി ആണ് പക്ഷേ ഞാൻ ചെറുതായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ വീട്ടിലുള്ള ആൾക്കാരെ കുറിച്ചാണ് പറയുവാണ് പറയുവാണ് അതാണ് പറയുന്നത് പിന്നെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ട് കുടുംബശ്രീയിൽ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് പിന്നെ വീടിൻ്റെ അടുത്തുണ്ട് എല്ലാവരും സുഹൃത്തുക്കൾ ഒരുപാടുണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രമണിയാണ് അത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളവളാണ് അവളെയെനിക്ക് ഭയങ്കര ഇഷ്ടം ആണ്